ആ അതെ അതെ എന്തായിരുന്നു ആവശ്യം ഓക്കെ ഓക്കെ എന്നാൽ ആ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കേരളത്തിൽ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ട് കോഴിക്കോട് നിങ്ങളുടെ വീട് എവിടെ ആയിട്ടാണ് വരുന്നത് ഇവിടെ കേരളത്തിൽ എവിടെ ആയിട്ടാണ് ഇവിടെ കോഴിക്കോട് നല്ല നല്ല ഇതുണ്ട് പിന്ന കൊച്ചിയിൽ കൊച്ചിയിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനും കിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ അത്യാവശ്യത്തിന് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് കാര്യങ്ങൾ ഉണ്ട് ആ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വരുന്നതാണ് പിന്നെ തിരുവനന്തപുരത്തും ഉണ്ട് നല്ല ഹോസ്പിറ്റൽ ആണ് മ് പിന്നെ ബേബി മെമ്മോറിയൽ ഉണ്ട് ആ മിംമ്സ് ഉണ്ട് മിംമ്സ് നേപ്പാളി വയനാട് ഭാഗത്ത് ഒന്ന് ഉണ്ട് മിംമ്സ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ കൂടുതൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ കോഴിക്കോട് നിക്കുവാണെങ്കിൽ ഗവൺമെൻറ്റിൽ ആണെങ്കിൽ കാണിക്കാം ഗവൺമെൻറ്റിൽ ആവുമ്പം അത്രയും എമൗണ്ട് ആവില്ല ബേബി മെമ്മോറിയൽ ഉണ്ട് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒത്തിരി ഇണ്ട് നല്ല നല്ല ഡോക്ടേഴ്സ് ഫെസിലിറ്റീസും കൂടുതൽ ആയിരിക്കും ആ അല്ല ഇവിടെ നമുക്ക് ഒരു ഉഴിച്ചിലിന്റെ ഉഴിച്ചിലിന്റെ അങ്ങനെ എന്തെങ്കിലും ആണോ ആ പിന്നെ അതായത് ആയുർവേദം ആണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആയുർവേദം നോക്കാം ആയുർവേദത്തിൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള വൈദ്യന്മാർ നോക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് നമുക്ക് അവിടേക്ക് പ്രിഫെർ ചെയ്യാൻ പറ്റും മ് ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾ പിന്നെ ഞാൻ നമ്പർ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പം നിങ്ങൾ അത് ആ അവരും ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസിൽ അവർ പറഞ്ഞുതരും മ് ഞാൻ അവരുടെ അവരുടെ അടുത്ത് നിങ്ങളുടെ കാര്യം പറയാം അപ്പം നിങ്ങൾ അവരും ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പം അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് വരാമല്ലോ മ് ഓക്കെ താങ്ക് യൂ